ഹാ നീ നോൺ വെജിറ്റേറിയൻ ആവാൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി കാരണം നമ്മുടെ ധാന്യങ്ങളും പോർട്ടബിൾ ഭക്ഷണങ്ങളും മേടിക്കുന്ന ഏറ്റവും നല്ലതാണ് കാരണം ധാന്യങ്ങൾ എന്നു പറയുമ്പോഴത്തേക്കും പ്രോട്ടീൻ സോഴ്സുകളായ മീനാണ് ഇമ്പോർട്ടൻ്റ് പക്ഷെ നമ്മുടെ പയറില്ലേ ചെറുപയർ ചെറുയർ ഏറ്റവും നല്ലതാണ് ചെറുപയറും പയർ വർഗ്ഗങ്ങളും ചീരയില കണ്ണിന് നല്ലതാണ് അതുപോലെതന്നെ നമ്മുടെ ചോറിനൊപ്പം ചീരയിലയും അച്ചാറും അച്ചാറുമൊക്കെ നല്ലതാണ് മാങ്ങയച്ചാറും മാങ്ങച്ചമ്മന്തിയും പിന്നെ തേങ്ങ ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇലക്കറികൾ അതുപോലെതന്നെ വൻപയർ ചെറുപയർ എല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുന്നു അതുകൊണ്ട് എപ്പോഴും നല്ലത് പയർ വർഗ്ഗങ്ങൾ കഴിക്കുക ഇലകൾ ഇലക്കറികൾ കഴിക്കുക കാരറ്റ് കഴിക്കുക കാരറ്റ് തോരൻ കഴിക്കുക അങ്ങനത്തെ കറികളെല്ലാം കൂട്ടുക